എക്സ്ക്യൂസ് മീ ശുബാനി മാമ് അല്ലേ ഹലോ മാമ് ഞാൻ ഗവൺമെന്റ് വിക്ടോറിയ കോളേജിൽ തേർഡ് ഇയർ വിദ്യാർത്ഥിനിയാണ്

ആ അപ്പോൾ ആ അത് ഞങ്ങൾക്ക് ടീച്ചേഴ്സ് എല്ലാവരും പറയാറുണ്ടെപ്പോഴും ആ ആ അതെ ആ ഇപ്പം ഈ വർഷം കൂടിയല്ലേ ഉള്ളൂ ക്ലാസ്സിലറുപത്തെട്ട് ആ ആ ക്ലാസ്സൊക്കെ നന്നായിട്ട് പോകുന്നുണ്ട് ആ മാനേജ്മെന്റ് സെയിം ആയി തന്നെ ഇരിക്കുന്നുണ്ട് പിന്നെ ചില ടീച്ചേഴ്സൊക്കെ ഇപ്പോഴും പറയും പണ്ടത്തെ ബാച്ചിനെ പറ്റിയിട്ടൊക്കെ ആ മാം മാമിൻ്റെ ഫോട്ടോ ഒക്കെ ഞങ്ങളുടെ അവിടെ ഒട്ടിച്ചു വച്ചിട്ടുണ്ട്

ഫാക്കൽറ്റി മാറി മാറി വരാറുണ്ട് പക്ഷേ എന്താ നമ്മുടെ സുജേഷ് സാർ ഉണ്ടല്ലോ അദ്ദേഹം മാത്രം ഇപ്പോഴും ഉണ്ട് അപ്പം അദ്ദേഹമാണ് ഇങ്ങനത്തെ പഴയ ബാച്ചിനെ പറ്റിയിട്ടൊക്കെ ആ ആ സാറിൻ്റെ ക്ലാസ്സ് നല്ല ക്ലാസ്സാണ് സാറിപ്പോൾ എച്ച് ഒ ഡി ആയി ഇനി ചിലപ്പോൾ അദ്ദേഹമാണ് നെക്സ്റ്റ് ചിലപ്പോൾ പ്രമോഷൻ എന്നു വച്ചാൽ പ്രിൻസിപ്പിളിൻ്റെ സ്ഥാനത്തേക്ക് ചിലപ്പോൾ അദ്ദേഹം ആയിരിക്കും പ്രമോഷൻ കിട്ടാൻ ചാൻസ് ഉണ്ടാവുക

ആണോ അറിയില്ല ആ ശ്രുതി മിസ്സിനെ ഞങ്ങൾക്ക് കണ്ട് അത്ര പരിചയമില്ല ആ പ്രൊജക്ട് ഞങ്ങൾ തുടങ്ങിയിട്ടില്ല ഇപ്പോൾ തേർഡ് ഇയറ് സ്റ്റാർട്ട് ചെയ്തിട്ടല്ലെ ഉളളൂ അപ്പോൾ ആ

ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല ഇപ്പോൾ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ പ്രൊജക്ടിനെ പറ്റിയിട്ടിപ്പോൾ ഞങ്ങളുടെ അടുത്ത് ഫാക്കൽറ്റി പറഞ്ഞു തുടങ്ങുന്നേ ഉള്ളൂ ഇപ്പോൾ ഞങ്ങളുടെ ഫസ്റ്റ് സീരിസും കൂടി കഴിഞ്ഞിട്ടാണ് അതിനെ പറ്റിയിട്ട്

ആ ആ യെസ് മാം ആ വേറേ കുഴപ്പമൊന്നുമില്ല മാം മാം എനിയെപ്പോഴാണ് വരിക

ഓക്കെ മാം ഹാ അതെ ഓക്കെ മാം അപ്പോൾ അപ്പോൾ കാണാം മാം

ഓക്കെ ആ ശരി മാം താങ്ക് യൂ മാം